ഹലോ ആരാണ് ആ പറഞ്ഞോ ഓഹ് ഒത്തിരി ഫോണുണ്ട് ലെനോവ ഉണ്ട് സാംസങ്ങുണ്ട് അങ്ങനെ അത് നമ്മുടെ ഈ പല സൈസ് ഫോണുകളുണ്ട് ഏതാണ് വേണ്ടത് സാംസങ്ങിന് പല പല വിലകളുണ്ട് നാല് ക്യാമറ ഉള്ളതുണ്ട് മൂന്ന് ക്യാമറ ഉള്ളതുണ്ട് അങ്ങനെ പല സൈസിലുള്ളതുണ്ട് ഏതാണ് മാഡം ആഗ്രഹിക്കുന്നത് ആ ക്യാമറ ഇല്ലാത്ത ഫോണിപ്പോൾ ആരെങ്കിലും ഉപയോഗിക്കുമോ ആ പിന്നല്ലാതെ ഇപ്പോൾ ക്യാമറ ഇല്ലാതെ വല്ലവരും ഫോണും കൊണ്ട് നടക്കുമോ നാല് ക്യാമറ ഉള്ളതിന് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ ആവും

ആ ഇ എം ഐയായിട്ട് അടച്ചു കൊടുത്താൽ മതി ആദ്യം ഒരൂ ആയിരം അയ്യായിരം രൂപായോളം അടക്കേണ്ടി വരും അതിന് ശേഷം മാസം തോറും ഇ എം ഐ ആയിട്ട് അടച്ചാൽ മതി ആ അയ്യായിരം എങ്കിലും അടയ്ക്കണം ആദ്യമേ അത്രയും വില ഉള്ള സാധനം അല്ലേ അപ്പം പിന്നെ പിന്നെ ബാക്കി രണ്ടായിരം ഒക്കെ വച്ച് മാസം തോറും അടച്ച് വിട്ടാൽമതി പത്ത് മാസം കൊണ്ട് തീർക്കണം

ആ പെൻ്റിങ്ങ് വന്നാൽ അതിനുള്ള പലിശയും കൂടെയൊക്കെ ആകും

മറ്റേ റെഡ്മിയുണ്ട് റിയൽമിയുണ്ട് ആ ആ റെഡ്മി ആ ഓരോത്തിൻ്റെ ഇതനുസരിച്ചല്ലേ വില ആ പതിനയ്യായിരം രൂപയുടെ ഉണ്ട് പതിനെണ്ണായിരം രൂപയുടെ ഉണ്ട് അങ്ങനെ പല വിലകളുടെയാണ് ആ ക്ലാരിറ്റി ഉള്ളതാണ് എല്ലാം നല്ല ക്ലാരിറ്റി എല്ലാം അത്യാവശ്യം നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ആണ് ക്ലാരിറ്റി ഒക്കെ ഉള്ളതാണേ ആ സാംസങ്ങ് ആ സാംസങ്ങ് അല്ല ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും അങ്ങനെയൊക്കെ തന്നെയാണേ എങ്കിലും ആ വില കൂടുന്നത് അനുസരിച്ചല്ലേ ഓരോന്നിൻ്റെ ഗുണമേന്മ വരത്തുള്ളൂ ആ അങ്ങനെയാ ആ ആ ആ സാംസങ്ങിൻ്റെ എടുക്കാം അത് നല്ലതായിരിക്കും നേരത്തേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നായിരുന്നു ഓപ്പോ ആ ഓപ്പോയുടെ ഉണ്ട്

ആ ഓപ്പോയുടെ ഉണ്ട് എല്ലാം ഉണ്ട് അതിനകത്ത് ഇപ്പം എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് സകല കാര്യങ്ങളും അടക്കം എല്ലാം നല്ല രീതീലുപയോഗിക്കാൻ പറ്റിയ സാധനമാ ആ നിങ്ങളേതായാലും വാ വന്ന് ഫോണെടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ ചെയ്യാം

മ്മ് ആ ആ ഞങ്ങൾ ഇവിടെ ഇവിടെ ദേണ്ടേ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻറ്റിൻ്റെ ഓപ്പസിറ്റായിട്ട് വരും കെ എസ് ആർ ടി സിയുടെ ഓപ്പസിറ്റ് ആ ആ ആ ആ ആ മതി മതി മതി മതി മതി ആ ആ ഇ എം ഐയ്യുടെ കാര്യം എല്ലാം ചെയ്ത് തരാം അതിനകത്ത് പേടിക്കുകയൊന്നും വേണ്ട ഫോണ് എന്നാണേലും നമ്മൾ ഗ്യാരണ്ടിയാ ഫോണിന് ആ വൺ ഇയറ് വാറണ്ടിയൊക്കെ ഉണ്ട് ആ ആ ആ നമുക്ക് ഫ്രീ സർവീസൊക്കെ ചെയ്ത് കിട്ടും ആറ് മാസത്തേക്കൊക്കെ ആ ആണോ ആ ശരി ശരി ഓക്കെ